ഇന്ത്യയിലെ എനിക്ക് സ്പോർട്സ് ആൻഡ് ഗെയിംസ് ഫീൽഡിൽ ഗെയിംസിലൊരൂ സച്ചിൻ ടണ്ടുൽക്കറെയാണെനിക്ക് വളരെ താൽപ്പര്യമായിട്ടുള്ളത് കാരണം വളരെ ചെറുപ്പം മുതലേ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം സ്കൂളിൽ പോയേച്ച് തിരിച്ച് വീട്ടിൽ ചെന്ന് പിന്നെ പ്രാക്ടീസിനായിട്ടൊക്കെ പോവുകയും വളരെ ഉത്സാഹത്തോട് കൂടി പ്രാക്റ്റീസ് സെക്ഷൻ സെഷനിലൊക്കെ പങ്കെടുക്കുകയും അങ്ങനെ ഒരു നല്ല ഭാവി ഉണ്ടാകണം എന്ന് വിചാരിച്ച് ആത്മാർഥതയോട് കൂടി ചെയ്തിരുന്നൊരു വ്യക്തിയാണ് സച്ചിൻ തന്തുൽക്കറെന്ന് നമുക്ക് നിസ്സംശയം പറയാം കാരണം അദ്ദേഹത്തിൻ്റെ സ്പോർട്സ് കാലയളവിൽ പറഞ്ഞാൽ വളരെയധികം റെക്കോർഡുകളും ഒക്കെ സൃഷ്ടിച്ചെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു നൂറ് സെഞ്ച്വറികളുമൊക്കെ ആയിട്ട് ഇപ്പോഴും തിളങ്ങി നിൽക്കുന്ന ഒരു താരമാണ് ഇപ്പോൾ റീട്ടേറ് ചെയ്തെങ്കിലും സ്പോട്സിലൊക്കെ വളരെ ഈ ക്രിക്കറ്റിൻ്റെ ഫീൽഡിൽ വളരെ സജീവമായി നിൽക്കുന്ന ഒരു താരം തന്നെയാണ് വളരെ അധികം ആൾക്കാരെ ക്രിക്കറ്റിൻ്റെ കാര്യത്തിലും സ്പോർട്സിന്റേം ഗെയിംസിൻ്റെയൊക്കെ കാര്യങ്ങളിലും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ധാരാളം പണവും അതിന് ചെലവാക്കുന്നതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെ വളരെ ഒരു നല്ല വ്യക്തിത്വം ഇന്ത്യാ ഗെവണ്മെൻറ്റാണെങ്കിൽപ്പോലും വളരെയധികം അവാഡുകളും ഒക്കെ കൊടുത്ത് അദ്ദേഹത്തെ ബഹുമാനിച്ചിട്ടുണ്ട് അർജുന അവാർഡുമൊക്കെ നേടിയൊരു വ്യക്തിയാണ് നല്ല രീതിയിൽ കളിക്കളത്തിൽ നല്ല രീതിയിൽ പെരുമാറുകയും എല്ലാവരോടും സ്നേഹമായിട്ടും ഒക്കെ പെരുമാറിക്കൊണ്ടിരുന്നൊരു വ്യക്തി അങ്ങനെയുള്ളയുള്ളൊരു വ്യക്തി മറ്റ് ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ ഇറങ്ങുമ്പോൾ അവർക്ക് തന്നെ ഒരു പ്രചോദനമാവുകയാണത് ചെയ്യുന്നത് അങ്ങനെ ഒത്തിരി അധികം പേരെ സച്ചിൻ തണ്ടുൽക്കറെ വലിയ ഒരു ഹീറോ ആയിട്ട് കരുതിക്കൊണ്ട് ആ രീതിയിലേക്ക് മാറാൻ ശ്രമിച്ച് കൊണ്ടിരിക്കുന്നു ഇപ്പഴും പിള്ളേരൊക്കെ ക്രിക്കറ്റിനോടാണ് താൽപ്പര്യം കൂടുതൽ കാണിക്കുന്നത് കാരണം ഇത് അവരൊക്കെ ഈ സച്ചിൻ തെണ്ടുൽക്കറും അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് ആളുകളും ഒക്കെ ചെയ്ത നല്ല അവരുടെയൊക്കെ ആ പ്രയത്നത്തിൻ്റെ കാര്യം ഒർക്കുമ്പോൾ പിള്ളേർക്കൊക്കെ ഒരു സ്പിരിറ്റ് ഉണ്ടാവുകയാണ് അങ്ങനെ ആ സ്പിരിറ്റിൽ ഇപ്പോൾ ധാരാളം പിള്ളേർ ക്രിക്കറ്റിലേക്കാണ് കൂടുതൽ കാരണം അതൊരു കൂടുതൽ പണമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സ്പോട്ട്സ് ആയിട്ടാണ് എല്ലാവരും ഇപ്പം കണക്കാക്കുന്നത് കാരണം പുതിയൊരു ഇൻറ്റർനാഷണൽ ഗെയ്മൊക്കെ ജയിച്ചു വന്നാൽ വളരെയധികം പ്രോത്സാഹനങ്ങളും വളരെയധികം ക്യാഷ് പ്രൈസുകളുമൊക്കെ കിട്ടുന്നു അതുതന്നെ ഒരു വലിയ കാരണം പിന്നെ സ്പോർട്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ വളരെയേറെ ഇഷ്ടപെടുന്ന ഒരു വ്യക്തിയാണ് പീ റ്റി ഉഷ ഇപ്പോൾ ഒളിമ്പിക്ക് അസോസിസിയേഷൻ്റെ പ്രസിഡൻറ്റുമൊക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് വളരെ താഴ്ന്ന നിലയിൽ നിന്നും സാമ്പത്തികമായൊന്നും വലിയ ഉന്നതിയില്ലാത്ത ഒരു സ്ഥലവും അത് തന്നെ ആയിരുന്നു അതുകൊണ്ട് സ്വയം സ്വപ്രയത്നം കൊണ്ട് കോച്ച് പറയുന്നതൊക്കെ അനുസരിച്ച് വളരെയധികം പ്രയത്നിച്ച് നല്ല രീതിയിൽത്തന്നെ ഒളിമ്പിക്ക്സിലും ഏഷ്യാഡിലുമൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് ഒളിമ്പിക്സിലാണെങ്കിൽ വളരെ ചെറിയൊരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ സ്വർണ്ണം നഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് മറ്റ് ഏഷ്യാഡിലൊക്കെയാണെങ്കിൽ ധാരാളം സ്വർണ്ണമൊക്കെ ഇന്ത്യയുടെ കായിക രംഗത്ത് വളരെയധികം യശസ്സ് ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് പീ റ്റി ഉഷ ഇപ്പോൾ ഒളിമ്പിക്ക്സ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റൊക്കെ ആയിട്ടിരിക്കുന്നു കായിക താരങ്ങളെ വളരെയധികം പ്രോത്സാഹിപ്പിക്കാൻ നല്ല രീതിയിൽത്തന്നെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് പി ടി ഉഷ വളരെ മറ്റ് ആൾക്കാർക്ക് ഒക്കെ ഇത് നല്ല പ്രചോദനമാകുന്ന ഒരു വ്യക്തി കൂടിയാണത്